നമ്മുടെ കുടുംബങ്ങളിൽ എന്നും അനുഷ്ഠിച്ച് വരുന്ന ചില സാംസ്ക്കാരിക പാരമ്പര്യങ്ങളിൽ ഒന്നാണ് അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ വീടുകളിൽ പറ പറ വരുന്ന ചടങ്ങ് പറ വരുന്നു എന്നുള്ളത് തന്നെ ഭഗവാൻ അമ്പലത്തിന് പുറത്തേക്ക് ഭക്തജനങ്ങളുടെ വീടുകളും അവരേയും കാണാനായിട്ട് വന്ന് അനുഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അപ്പം ആ സമയങ്ങളിൽ നമ്മൾ വീടുകളെല്ലാം വൃത്തിയാക്കി വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കി നമ്മളതിന് പറ നൽകുന്ന സ്ഥലങ്ങൾ അടിച്ച് തളിച്ച് അവിടെ പന്തൽ ഒരുക്കി തോരണങ്ങൾ തൂക്കി പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് പറയൊക്കെ നിറച്ച് വിളക്ക് വെച്ച് വിളക്കത്ത് അവലും മലരും തേങ്ങയും ശർക്കരയും പഴം എല്ലാം വെച്ച് നമ്മൾ ഭഗവാൻ്റെ തിടമ്പ് വരുമ്പോൾ അതെല്ലാം നമ്മൾ പറ അർപ്പിച്ച് നമസ്കരിക്കുന്നു അപ്പം അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അത് നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ അത് പറ കൊടുക്കാനായിട്ട് കഴിവതും ശ്രമിക്കും